ഞാൻ നിൽക്കുന്നത് ഒരു ഗ്രാമംപ്രദേശത്തിലാന്ന് ഇവിടുത്തെ ആളുകളിൽ ഈ പറയണ പോലെ വലിയ ആഘോഷവും മദ്യപാനമെല്ലാം ഉണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റൂലാ പക്ഷേ വലിയ രീതിയിൽ ഒന്നുല്ല ആ പണ്ടെല്ലാം കള്ളുഷാപ്പ് കള്ളുകുടി ഇങ്ങനത്തെ കാര്യങ്ങളിലാന്ന് പക്ഷേ ഇപ്പം ആ ബീവറേജ് അങ്ങനെ അങ്ങനെയുള്ള മദ്യപാനം ബാറുകൾ ഇത് ഇതെല്ലാന്ന് ഇപ്പോൾ ഉള്ളത് കൂടുതലും ഇതാന്ന് കള്ളുഷാപ്പുകളും ഉണ്ട് പാ പ്രായമായ ആൾക്കാർ കൂടുതലും കള്ളുഷാപ്പുകളിൽ വൈകുന്നേരം ആകുമ്പോൾ പോവും അവിടുന്ന് കള്ളുകുടിച്ച് ഭക്ഷണവും കഴിച്ച് അവിടുന്ന് സംസാരായി അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോവും ഇന്നത്തെ വളർന്നു വരുന്ന തലമുറകളിൽ കൂടുതലും ആൺകുട്ടികളാന്ന് ഈ വലിയ ആഘോഷങ്ങൾ പാർട്ടികൾ ഇതെല്ലാം ഇപ്പം പുറത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ഫോണിലേ കൂടി കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കും അതുപോലെ തന്നെ ചെയ്യണന്നുള്ള ആഗ്രഹം ഉണ്ടാകും അപ്പം ചെറിയൊരു എന്ത് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു പരിപാടി നടക്കുക ഒരു കുട്ടിൻ്റെ പെറന്നാളോ അല്ലെങ്കിൽ വീട്ടിൽക്കയറി കൂടലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ആ അപ്പളേക്കും നമ്മളീ മദ്യ സൽക്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളാന്ന് അതിൽ മുൻപന്തിയിൽ നിൽക്കുക അത് അത് അങ്ങനത്തെ ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ അത് ഈ വലിയ വലിയ ആഘോഷങ്ങൾ ആക്കി മാറ്റി എന്നിട്ട് ഈ മദ്യപാനം ഇങ്ങനെയുള്ള സംഭവങ്ങളാന്ന് അവിടെ നടക്കുക ഫോണിലി കൂടി തന്നെ നമ്മൾ ഇത് ഇതെല്ലാം കാണുന്നത് കൊണ്ട് അപ്പം എല്ലാവർക്കും ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താലേ അത് നന്നാവു നല്ല വലിയ പാർട്ടിയാന്ന് പറയണങ്കിൽ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്തയാന്ന് ഉള്ളത് അത് നമ്മൾ പരമ്പരാഗത സാംസ്കാരിക മൂല്യങ്ങളെ അത് ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മളുടെ കുട്ടികൾ അവർ അവർ കാണുന്നത് ഇതെല്ലാമാണ് അവരും അതിൻ്റെ ഒരു ഒരു ഭാഗമാകുന്നു അവർ മദ്യപിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ അവരും കാണുന്നത് ആ ഇങ്ങനെ ഇതാന്ന് ആഘോഷം എന്നു പറയുന്നത് ഇതാണ് ഇങ്ങനെയാന്ന് ചെയ്യേണ്ടത് അപ്പം അവരും കണ്ടു പഠിക്കുന്നത് അതാണ് ഈ ക്ലബ്ബുകൾ പണ്ടൊക്കെ ക്ലബ്ബുകൾ എല്ലാം വളരെ കുറവാന്ന് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഓരോഓരോ ഭാഗത്ത് ഓരോ ഭാഗത്തായിട്ട് ക്ലബ്ബുകൾ ഉണ്ടാകും അപ്പോൾ അതിൽ വൈകുന്നേരം ആവുമ്പം ഇവർ ഒത്തു കൂടും പിന്നെ അത് കഴിഞ്ഞ് അവർ കുറെ സമയം മദ്യപാനം അത് കഴിഞ്ഞിട്ടാന്ന് വീട്ടിലേക്ക് വരുക ഈ ഈ ആഘോഷങ്ങളും ഈ ക്ലബ്ബി പോക്കും ഇതെല്ലം ഒരു ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം പോലെയാന്ന് അവർക്ക് തോന്നുന്നത് സ്ത്രീകളും സ്ത്രീകൾ കൂടുതലായിട്ടൊന്നുമില്ല എണ്ണത്തിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരും ഇങ്ങനത്തെ മദ്യപാനത്തിലേക്കെല്ലാം പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മദ്യപാനം മാത്രമല്ല ഇതുപോലത്തെ പുകവലി അങ്ങനെയുള്ള എല്ലാം എല്ലാ വിനോദങ്ങളിലും അവർ ഈ ആൺകുട്ടികൾ ഉണ്ടാവുന്നുണ്ട്